ഞാനൊരു പി എഫ് വായ്പയ്ക്ക് അപേക്ഷിക്കുന്നതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത് അപ്പോള് എനിക്ക് ഈ പി എഫ് പോർട്ടല് എങ്ങനെ സന്ദർശിക്കാമെന്ന് പി എഫ് വായ്പയ്ക്ക് അപേക്ഷിക്കാനായിട്ട് വായ്പാ വിഭാഗത്തിലേക്ക് എങ്ങനെയാണ് നാവിഗേറ്റ് ചെയ്യാനായിട്ട് മെയ്നായിട്ട് ഈയൊരു പോർട്ടല് സന്ദർശിക്കുകയും ഇതില് ഈ പോർട്ടലിൽ ഈ വായ്പ നൽകുന്നവരുടെ നമ്പര് ഉണ്ടായിരിക്കുമല്ലോ അതിലേക്ക് എങ്ങനെയെങ്കിലും ഫോക്കസ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുക പിന്നെയാണെങ്കില് അതിൽനിന്നും എന്തെങ്കിലും ഡേറ്റ കിട്ടുമോയെന്നുള്ളതിൻ്റെ ഒരു വിവരവും അന്വേഷിക്കും പിന്നെയാണ് പി എഫ് വായ്പ മെയ്നായിട്ടും ഉദ്ദേശിക്കുന്നത് കുടുംബത്തിലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മാറ്റുവാനും അതിലൂടെ കുറച്ച് ഈ കുറച്ചാണെങ്കില് എനിക്ക് കൂടുതല് ലോണ് പിന്നെ ലോണെടുക്കുന്നത് തന്നെ വീട്ടിലെ പല ആവശ്യത്തിനും വേണ്ടിയിട്ടാണ് അപ്പോള് എങ്ങനെയെങ്കിലും എനിക്ക് ഈയൊരു വായ്പ കിട്ടിയേ പറ്റൂ അപ്പോള് നിങ്ങളുടെ ഈ സൈറ്റിൽ നിന്ന് എങ്ങനെയാണ് അപേക്ഷ വെയ്ക്കേണ്ടതെന്ന് എനിക്ക് വ്യക്തമായ ധാരണയില്ല അതുകൊണ്ടാണ് നിങ്ങളുടെ ആളുടെ നമ്പര് ഈ പോര്ട്ടലില് നിന്ന് കിട്ടുമായിരുന്നെങ്കില് എനിക്ക് നേരിട്ട് വിവരങ്ങളൊക്കെ അന്വേഷിച്ച് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ ചെയ്യേണ്ടതെന്നുള്ളതിൻറ്റെയൊരു ഡേറ്റ ലഭിക്കുമായിരുന്നു അപ്പം മെയ്നായിട്ട് ഞാനീ പി എഫ് വായ്പ്പയ്ക്ക് അപേക്ഷിക്കുന്നതിനെക്കുറിച്ച് തന്നെയാണ് ആലോച്ചിക്കുന്നത് ലോണെടുക്കാനായിട്ട് അപ്പോള് നിങ്ങളുടെ വായ്പാ കൂടുതല് ഉപകാരപ്രദമാകുമെന്ന് തന്നെയാണെന്റെയൊരു വിശ്വാസം ഇപ്പോള് ഈ പി എഫ് വായ്പയ്ക്ക് അപേക്ഷിക്കാനായിട്ട് വായ്പാ വിഭാഗത്തിലേക്ക് നിങ്ങളുടെ പോര്ട്ടല് സന്ദർശിക്കാമെന്ന് പറഞ്ഞ് അത് ഒന്നുകിൽ ഏതെങ്കിലും ഏജൻസി വഴിയോ അല്ലെങ്കില് ബാങ്കിൽ ചെന്നിട്ട് അങ്ങനെയാണോ എങ്ങനെയത് അങ്ങനെ സന്ദർശിച്ച് നിങ്ങളുടെ ഈ പോര്ട്ടല് ലഭ്യമാകുമെന്നാണ് എന്റെയൊരു ധാരണ നിങ്ങളുടെ എൻ്റെ കുടുംബത്തിന്റെ ഒരു സാമ്പത്തികമായിട്ടും വളരെ ഫിനാൻഷ്യലി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരിതാണ് അപ്പോള് ഞങ്ങള്ക്ക് കുറച്ച് കടമുണ്ടായിരുന്നു അപ്പോള് അതൊക്കെ വീട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെയായിരുന്നു ഞാന് ഇത് മെയ്നായിട്ട് ഫോക്കസ് ചെയ്തത് അപ്പോള് എങ്ങനെയെങ്കിലും എനിക്ക് നിങ്ങളുടെ ഈ വായ്പ കിട്ടണമെന്നുതന്നെയാണ് ആഗ്രഹം ഞങ്ങളുടെ കുടുംബാസൂത്രണാവശ്യങ്ങള് അപ്പോള് എങ്ങനെയെങ്കിലും ഈ വായ്പ എടുക്കാന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോള് പി എഫ് വായ്പ അപേക്ഷിക്കാനായിട്ട് നിങ്ങളുടെ ഈ പോർട്ടല് സന്ദർശിച്ച് അതില് അതിൽനിന്ന് എങ്ങനെയെങ്കിലും നമ്പറൊക്കെ കളക്റ്റ് ചെയ്ത് നിങ്ങളെ വിളിക്കാനായിട്ടാണ് ഞാന് ശ്രമിക്കുക അപ്പോള് ഈ വായ്പ പ്രധാനമായിട്ടും കുടുംബത്തിൻ്റെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്